ആ ഞാൻ വിളിക്കുന്നത് ടീ ടീ പ്ലാൻറേഷനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയായിരുന്നേ

ആ എടുക് ആ ഇടുക്കിയിലെ പ്ലാൻറേഷനെ കുറിച്ച് അറിയാൻ വേണ്ടി ഇത് എവിടെയൊക്കെയാണ് നല്ല ഇത് കിട്ടുന്നതും

നമുക്ക് എല്ലാം വേണം ഗ്രീൻ ടീ മസാല ടീ നോർമൽ എല്ലാം കിട്ടുന്നത് ആ ഓക്കെ അപ്പോൾ അതിന് ക്വാളിറ്റി വ്യത്യാസം ഉണ്ടോ ആ ഓക്കെ ഓക്കെ അതിലും വരുന്നതാണല്ലോ ഈ ഗ്രീൻ ടീ മസാല ടീ ഒക്കെ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ആ ആ ആ ആ ഓക്കെ ഓക്കെ അപ്പം ഇത് ആ ഒന്ന് നമുക്കത് കണ്ടിട്ട് നോക്കിയിട്ട് വേണം മേടിക്കാനൊക്കെ ഇതിപ്പം മൂന്നാർ മാത്രം മൂന്നാർ മാത്രം ഉള്ളോ അതോ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നമ്മൾ പ്ലാൻറേഷൻ ഉണ്ടോ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ അപ്പം ഇതിൻ്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ആ ഓക്കെ ഓക്കെ അപ്പം ഇത് വന്ന് നമ്മൾ മേ മേടിച്ച് നോക്കിയിട്ട് മേടിക്കുന്നതായിരിക്കും നല്ലതല്ലേ ആ ഓക്കെ അപ്പം നമുക്ക് ആ ഓക്കെ ഓക്കെ ആ ഹാ ആ ആ ആ ഓക്കെ അവിടെ ഫാക്ടറി ഉള്ളതാണോ കാൽവരി മൗണ്ട് ഒക്കെ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ ഞാൻ അതൊന്ന് നോക്കിയിട്ട് വന്നിട്ട് ആ ഓക്കെ ഓക്കെ